എൻ്റെ പ്രദേശത്ത് ഒരുപാട് പരമ്പരാഗത കളികൾ ഉണ്ടായിരുന്നു എൻ്റെ ചെറുപ്പകാലത്തെല്ലാം ഞങ്ങൾ ഒരുപാട് കളികൾ കളിച്ചിട്ടുണ്ട് കള്ളനും പോലീസും ആകാശവും ഭൂമിയും പൊട്ടിയും മുള്ളും അങ്ങനെ ഒരുപാട് നല്ല നല്ല കളികൾ കളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ കളികൾക്കും അഞ്ചിൽ കൂടുതൽ ആൾക്കാരാവശ്യമായിരുന്നു അങ്ങനെ കളിക്കുമ്പോൾ സമയം പോകുന്നത് അറിയില്ലായിരുന്നു നല്ല രസമാണ് എല്ലാവരും കൂടി ഒത്ത് ചേർന്ന് കളിക്കുമ്പോൾ അതിൻ്റെതായ സന്തോഷവും എല്ലാമുണ്ട് അവധി ദിവസങ്ങളിലെല്ലാം ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് കളികളെല്ലാം കളിക്കാറുണ്ട് എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ കളികൾ പോലും മറന്ന് വീടിനുള്ളിൽ തളച്ച് തളച്ചിരിക്കുകയാണ് കുട്ടികളെല്ലാവരും അവർക്ക് കളികൾ എന്തെന്ന് പോലും അറിയില്ല എല്ലാവരും ഫോണിലും ലാപ്ടോപ്പുകളിലുമായി അവരുടെ ലോകം അവരുടെ കുട്ടിക്കാലത്തെ ആ ഒരു കാലഘട്ടം അവിടെ അവിടേയ്ക്ക് ചുരുങ്ങിയിരിക്കുകയാണ് അങ്ങനെ കളി എന്താണ് കളികൾ കളികളിലെ തമാശ എന്താണ് സൗഹൃദം എന്താണെന്ന് പോലും അറിയാത്ത ഒരു തലമുറയാണ് വന്നു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ശരീരം ഒന്നും അനങ്ങാത്ത കുട്ടികളായതിനാൽ അവർക്ക് പെട്ടന്ന് തന്നെ അസുഖങ്ങളെല്ലാം പടർന്ന് പിടിക്കുന്നു